ഹലോ അപ്പോൾ എനിക്കൊരു വിഷയം ഉണ്ടായിരുന്നു ഞാനാണെങ്കിൽ ഗവൺമെൻന്റെ എൽ പ്പീ ജി ബുക്ക് ചെയ്യാനായിട്ടുള്ള വെബ്സൈറ്റിൽ കയറിയായിരുന്നു അപ്പോൾ ഞാനൊരു എൽ പ്പീ ജി സിലണ്ട്ര് ഒക്കെ ഓഡ്റ് ചെയ്തായിരുന്നു അപ്പോൾ സിൽണ്ട്ര് ഓഡ്ര് ചെയ്തിട്ട് എനിക്ക് ഇതുവരെയായിട്ട് കിട്ടിയില്ല അപ്പോൾ ഞാനൊരു പുതിയ കസ്റ്റമറാ ഞാൻ ആണെങ്കിൽ വെബ്സൈറ്റിലാണെങ്കിൽ എല്ലാം കേ വൈ സി ഡോക്ക്മെന്റ് ഒക്കെ എല്ലാം കൊടുത്തിട്ട് ഫോട്ടോ അപ്ലോഡ് ചെയ്തു പിന്നെ ആധാർക്കാഡിന്റെ നമ്പറ് കൊടുത്തു അപ്പം അതൊക്കെ ശേഷം അഡ്രസ് കൊടുത്ത് ഒക്കെ രജിസ്ട്ര് ചെയ്തായിരുന്നു അപ്പോൾ അതിലൂടെ അതിന് ശേഷം ഞാൻ എന്നിട്ടൊരു സിലണ്ട്ര് ഒക്കെ ഓഡറ് ചെയ്ത് ഒരാഴ്ച്ചത്തോളമായി അപ്പം എനിക്കിതുവരെയായിട്ടും സിലണ്ടറ് ലഭിച്ചിട്ടില്ല ഞാനാണെങ്കിൽ വെബ്സൈറ്റിൽ സിലിണ്ട്റ് എവിടെയാണ് എത്തിയേക്കണത് എന്നുള്ള സ്റ്റാറ്റസ് ഒക്കെ നോക്കി പക്ഷേ എനിക്കിതുവരെയായിട്ടും വെബ്സൈറ്റിൽ കാണിച്ചിട്ടില്ല എവിടെ വരെ എത്തീട്ടെന്ന് അപ്പോൾ ഇപ്പം ആണെങ്കിൽ സിലിണ്ട്ര് ഒക്കെ ഒരുവിതം ഒക്കെ തീരാറായിട്ടുണ്ട് വീട്ടിൽ അപ്പോൾ ഉടനെ തന്നെ കിട്ടുകയാണെങ്കിൽ നമുക്ക് വളരെ ഉപകാരപ്രദമാകുമായിരുന്നു അപ്പോൾ എൻ്റെ റെഫറൻസ് സിലണ്ടർ ബുക്കേയ്ൻറ്റക്ക് റെഫ്രൻസ് നമ്പറ് ഞാനിപ്പം പറയാം ആധാർക്കാഡിന്റെ അവസാനത്തെ ഡിജിറ്റ്സ് ഒക്കെ ഞാൻ പറയാം അപ്പോൾ റെഫ്രൻസ് നമ്പറ് ആറ് എട്ട് ഒമ്പത് പൂജ്യം അഞ്ച് ഏഴ് ആറ് ഒന്ന് മൂന്ന് രണ്ട് പൂജ്യം ഒന്ന് മൂന്നാണ് പിന്നെ ആധാർക്കാഡിൻ്റെ അവസാനത്തെ ഡിജിറ്റ്കൾ ആറ് ഏഴ് ഒന്ന് പൂജ്യമാണ് അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം നോക്കിയിട്ട് എൻ്റെ വിഷയം ഉടനെ തന്നെ പരിഹരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതൊക്കെ നോക്കി എല്ലാം എനിക്ക് ഉടനെ തന്നെ ഒരു അപ്ഡേറ്റ് കിട്ടുവായിരുന്നെങ്കിൽ വളരെ ഉപകാരപ്രദമാകുമായിരുന്നു അപ്പോൾ എൻ്റെ സാഹചര്യം ഉടനെതന്നെ പരിഹരിക്കുമെന്ന് വിചാരിക്കുന്നു താങ്ക് യു